ഹലോ ഗുഡ് മോർണിങ് ഇൻടീരിയൽ ഡിസൈനർ കാർത്തികയല്ലേ എൻ്റെ പേ ആ എൻ്റെ പേര് സനികായിരുന്നു ഞാൻ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ റിനോവേഷന് വേണ്ടീട്ടായിരുന്നു ആ ഞാൻ അ ആ ഞാനടുത്ത മാസം പത്താം തീയതി ആയിട്ട് വരുന്നുണ്ട് ആ അപ്പം അതിനേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടീട്ടായിരുന്നു

ആ എനിക്ക് റൂമിന്റുള്ളിലൊക്കൊന്ന് ഇൻടീര്യല് ചെയ്യും വേണായിരുന്നു പിന്നെ ടൈലൊക്കൊന്ന് മാറ്റണായിരുന്നു ആ ആ അങ്ങനെയാണ് നല്ലതുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ അങ്ങനെ ചെയ്യാം ആയിക്കോട്ടെ ഒരു ലോ ബഡ്ജറ്റാണ് ഞാൻ പ്രതീഷിക്കുന്നത് ആ പിന്നെ ഷോക്കേസും കാര്യങ്ങളൊക്കൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു ഹാളിലമ്മൾ കയറി വരുന്ന അവിടെയൊന്ന് ഷോ കാരണം കുട്ടികളൊരുപാട് ട്രോഫീ കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചൊന്ന് ശരിക്ക് വെക്കാനുള്ളൊരു സ്ഥലം കിട്ടീട്ടില്ല കുറച്ച് ഷോ കിട്ടുന്ന രീതിക്കത് സെറ്റ് ചെയ്യണായിരുന്നു ആ കുറച്ച് കുറച്ച് വലുതായിട്ട് എന്നാൽ അത് ഏതിലായിരിക്കും ഒന്നൂടെ ഷോ കിട്ടുന്ന രീതി എങ്ങനെയാണോ അങ്ങനെ എടുക്കാമായിരുന്നു ആ ആ അയക്കോ അങ്ങനെ ചെയ്യാം അപ്പം ഇനി എപ്പോഴെക്കാ ഇങ്ങൾക്ക് പറ്റാ ഒന്ന് വന്ന് കാണാനൊക്കെ

ആ പെട്ടെന്നായിക്കോട്ടെ ഞാൻ വന്ന് കഴിഞ്ഞഴിഞ്ഞാൽ അധികം ലീവൊണ്ടാവില്ലെനിക്ക് അപ്പോൾ അതിന് വേണ്ടീട്ടായിരുന്നു ആ ആ അതക്കെ ഓ ആയിക്കോട്ടെ വേ ഓ വന്നോട്ടെ വരുമ്പൊന്ന് വിളിയ്ക്കണേ ആ മതി മതി ഈ നമ്പറേക്ക് വിളിക്ക് ഓക്കെ താങ്ക് യൂ ആ ഞാൻ വാട്ട്സപ്പ് ചെയ്യാം ഈ നമ്പറേക്ക് വാട്ട്സപ്പ് ചെയ്യാട്ടോ